പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന എനിക്ക് രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് രാവിലെ നീന്തി നീന്തലിന് പോകാനുള്ള സമയം കിട്ടാറില്ല അതേപോലെ തന്നെ നീന്തലിന് പോയാൽ കൊള്ളാമെന്നുണ്ട് ഇതിന് പകരം ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഏഴ് മണിയാകും ഏഴ് മണി ഞാൻ ഇച്ചിരി നീന്തലിന് പകരം നടക്കാനായിട്ട് പോകാറുണ്ട് അതുകൊണ്ട് നീന്തൽ എനിക്ക് വശമാണെങ്കിലും കൊച്ചിലെ പഠിച്ച നീന്തൽ എനിക്ക് വശമാണെങ്കിലും നീന്താനുള്ള സമയം കിട്ടാറില്ല